ഞാനിതിനകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് പിന്നെ വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ട് ഫേസ്ബുക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആകണമെന്നൊന്നും ഇല്ല ചില ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റാകുന്നുണ്ട് നല്ല കാര്യങ്ങളുണ്ട് ഒത്തിരി നല്ല നല്ല അറിവുകൾ തരുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ മോശമായ ഒത്തിരി കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് എല്ലാം തെറ്റും ശരിയും അതിനകത്ത് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇതിൽനിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് നല്ല വാർത്തകൾ വരുന്നുണ്ട് പിന്നേ അതുപോലെത്തന്നെ നമുക്കൊത്തിരി ഒത്തിരി പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാനുള്ള ചില ചില ഓരോ മനസ്സിനെ ചിരിപ്പിക്കുവാനുള്ള ഓരോ തമാശകൾ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കെപ്പോഴും സന്തോഷമുളവാക്കുന്ന ചില വാക്കുകളും ചില സംസാരങ്ങളും ചില ചില ഇടപെടലുകളുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അത് പിന്നെ എന്നാൽ മോശമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പം നമ്മളോർക്കും ഇതിനകത്ത് എല്ലാം ശരിയാണെന്ന് പക്ഷേ തെറ്റായ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചടുത്തോളം നമുക്കൊത്തിരി ഒത്തിരി അറിവുകൾ നമുക്ക് സന്തോഷവും മനസ്സിന് സന്തോഷവും ചിരിപ്പിക്കുവാനുമൊക്കെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽനിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് വാട്സപ്പ് എടുത്താലും അതിനകത്തും നമുക്ക് നല്ല വാട്സപ്പിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല നല്ല മെസ്സേജുകളയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ ഫേസ്ബുക്കിലും അയച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സമയങ്ങളൊന്നും ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ നോക്കും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വായിക്കാൻ നോക്കും അതുപോലെത്തന്നെ തമാശകളും പൊട്ടിച്ചിരികളുമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ നല്ല ആത്മീയമായ പ്രാർത്ഥനകൾ അതായത് നല്ല നല്ല പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പം നമുക്കൊത്തിരി സന്തോഷമുണ്ടാക്കുന്നുണ്ട് മനസ്സിന് പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഷെയർ ചെയ്യും പിന്നെ ചില ചില അപകടത്തിൽപ്പെട്ട് പോകുന്ന കാര്യങ്ങളുണ്ട് അത് വരുമ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതിലൊന്നും ചെന്ന് ചാടാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽനിന്ന് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചില നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത തെറ്റായ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ വരുന്നുണ്ട് അത് നമ്മളങ്ങനെ അത്രയും ശ്രദ്ധിക്കത്തില്ല വായിക്കുമ്പോഴോ അല്ലേൽ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് തെറ്റാണെന്നുള്ളത് അന്നേരമത് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത മാറ്ററിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാറുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുവാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മൾ ന്യൂസുകളെല്ലാം നോക്കണമല്ലോ ന്യൂസുകൾ നോക്കും അതുപോലെത്തന്നെ വല്ല കഥയോ വല്ല വായിക്കാനുള്ള നല്ല രസമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല നല്ല അറിവുകൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെത്തന്നെ ഞങ്ങളുടെ പേരൻസിനോ അതുപോലെ നമ്മുടെ കൂട്ടുക്കാർക്കോ മറ്റുള്ള വ്യക്തികൾക്കെല്ലാവർക്കും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കണ്ടുകഴിയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഇത്രയും ആശംസിക്കുന്നു